നമുക്ക് ഇവിടെ ബിസിനസ്സ് ആയിട്ട് നടത്താം എന്ന് പറയുന്നത് ഇപ്പം എന്താണ് വെച്ചുകഴിഞ്ഞാൽ മരത്തിൻ്റെ ബിസിനസ്സ് നടത്താം മരത്തിൻ്റെ എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ നമ്മുടെ ഭൂമിയിൽ നിന്ന് കിട്ടുന്ന മരം നമുക്ക് ഇപ്പോൾ എന്തെങ്കിലും പ്ലൈവുഡോ കാര്യങ്ങളൊക്കെ ആക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഒക്കെ സാധിക്കും പിന്നെ പ്ലൈവുഡ് അല്ലെങ്കിൽ നമുക്ക് ഇപ്പം മേശയോ കട്ടിലോ അങ്ങനെ അങ്ങനെ എന്തെങ്കിലുമൊക്കെ സാധനങ്ങളൊക്കെ ആക്കിയിട്ട് നമുക്ക് രൂപകല്പന ചെയ്യാം ഇല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും കൊത്തുപണിയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നല്ല രീതിയിലുള്ള ശിൽപ്പം ആക്കി എടുക്കാനും നമുക്ക് ഈ മരം കൊണ്ടൊക്കെ ഉപയോഗിക്കുന്നുണ്ട് പിന്നെ എന്ത് വെച്ചുകഴിഞ്ഞാൽ വേറെ ഒരു ബിസിനസ്സ് നടത്താൻ പറ്റിയ സാധനങ്ങൾ എന്നൊക്കെ പറഞ്ഞുകഴിഞ്ഞാൽ നമുക്കിപ്പം എന്തെങ്കിലും അതായത് ഇപ്പം കുരുമുളക് കുരുമുളകിൻ്റെ ബിസിനസ്സ് വേണമെങ്കിൽ നടത്താം കുരുമുളക് അല്ലെങ്കിൽ കാപ്പി കാപ്പിപ്പൊടി നമുക്ക് കാപ്പി നമുക്ക് ഇപ്പോൾ നമ്മുടെ നാട്ടിൽ തന്നെ കാപ്പി ഉണ്ടെങ്കിൽ നമുക്കത് പൊടിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം കോഫി ആക്കിയിട്ട് കുടിക്കുകയോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ബിസിനസ്സ് ആണ് നമുക്ക് അങ്ങനെ നടത്താം പിന്നെ കോഴി കോഴി ഫാം അങ്ങനത്തെ എന്തെങ്കിലും ഒക്കെ പരിപാടി ഒക്കെ നടത്താം അത്യാവശ്യം നമ്മുടെ പ്രകൃതി വിഭവങ്ങൾ തന്നെ കൂടുതലായിട്ടും നമുക്ക് ഇവിടെ കിട്ടാൻ ഉണ്ട് നമുക്ക് ഇപ്പം എന്താണ് പറയുക മാങ്ങ മാങ്ങേൻ്റെ കൃഷി നടത്താം മാങ്ങ കൃഷി എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ നമുക്ക് നല്ല വിവിധ തരം മാങ്ങകൾ വേണമെങ്കിൽ നമുക്ക് ടൗണിൽ ഒക്കെ കൊണ്ടുപോയി വിൽക്കുക കാര്യങ്ങളൊക്കെ ചെയ്യാം പിന്നെ പാ പാഷൻ ഫ്രൂട്ട് അങ്ങനത്തെ പിന്നെ കപ്പളങ്ങ അങ്ങനത്തെ സാധനങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യാം അടിപൊളിയായിട്ട് കൃഷി ചെയ്തിട്ട് നമുക്ക് പുറമെ കൊണ്ട് വിൽക്കുകയോ കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് സാധി